ഇപ്പോൾ കാലാവസ്ഥയെ തന്നെ നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടായ കാല വർഷ കെടുതികള് നല്ല രീതിയിൽ അനുഭവിച്ച ഒരു നാടാണ് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം എന്ന് വെച്ചാല് നമ്മുടെ കൃഷിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമ്മള് ഇപ്പം ഒന്ന് വയലില് വിളവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നങ്ങൾ ഒക്കെ എന്തൊക്കെയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് വിളവെടുത്ത സമയത്ത് വെള്ളപൊക്കവും കാര്യങ്ങൾ ഒക്കെ വന്ന് കഴിഞ്ഞാൽ കൃഷി മുങ്ങി പോയി വെള്ളത്തിനടിയിൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഉള്ള വെള്ള പൊക്ക ബാധ്യതയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥാവ്യതിയാനം കൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വരൾച്ച ഉണ്ട് നല്ല രീതിയിൽ ഉള്ള വരൾച്ച ഇപ്പോൾ നമുക്ക് നേരിട്ടുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സമയങ്ങളിൽ വരൾച്ച നേരിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് കാരണം എന്താ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന വെള്ളം ആണെങ്കിലും ഇപ്പം ഉറവ എന്ന സംഭവം ഇല്ലാതെയായി തുടങ്ങിട്ടുണ്ട് കാരണം എന്താ എന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയങ്ങളിൽ എല്ലാം നല്ല രീതിയിൽ ഉള്ള മഴയും കാര്യങ്ങളും ഒക്കെ ലഭിക്കേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കിണറുകൾ എല്ലാം വറ്റിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ കിണറെല്ലാം വറ്റിക്കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായികൊണ്ടിരിക്കുന്നത് പിന്നെ പല തരത്തിലുള്ള ചുഴലിക്കാറ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മഞ്ഞ് വീഴ്ച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഉള്ള മഞ്ഞ് വീഴ്ച്ച നമുക്ക് വയനാട്ടിൽ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടായി കൂടായ്ക ഉണ്ട് ഇല്ലാ എന്നും പറയാൻ പറ്റില്ല കാരണം കർഷകര് പല രീതിയില് നേരിടുന്ന ചില വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്